ആ ഞാൻ എല്ലാ ദിവസവും ഊബറ് ബുക്ക് ചെയ്യ്തിട്ടാണ് ഓഫീസിലേക്ക് പോയി കൊണ്ടിരുന്നത് ഇന്ന് പക്ഷേ എനിക്ക് ഇന്ന് ഓഫീസിലേക്ക് പോകേണ്ടാവശ്യമില്ലായിരുന്നു പക്ഷേ ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഒരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ്ഡായിട്ട് അഞ്ഞൂറ് രൂപ ആ അഞ്ഞൂറ് രൂപ എനിക്ക് തിരികെ തരണം ഇന്ന് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണെനിക്കിന്ന് വരാൻ പറ്റാൻ ഇന്ന് ഊബറ് ബുക്ക് ചെയ്യേണ്ടി വന്നത് വരാഞ്ഞത് പക്ഷേ എൻ്റെ അത് ക്യാൻസലായതത് അതുകൊണ്ടാണ് പക്ഷേ എനിക്കതിൻ്റെ പൈസ അഡ്വാൻസ് കൊടുത്ത അത് അഞ്ഞൂറ് റുപ തിരികെ തന്നാൽ വളരെ ഉപകാരവായിരിക്കും എൻ്റെ ഗൂഗിൾ പേയിലേക്കയക്കുവാണെങ്കിൽ അത്രയും ഉപകാരം